ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പം പണ്ട്കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാര്യം സ്കൂള്കളിൽപ്പോലും ആണേലും വിദ്യാഭ്യാസത്തിലും സ്പോർട്സിലും ആർട്സിലും അങ്ങനങ്ങനെയൊരുപാട് കാര്യങ്ങള് നമ്മള് മുൻപോട്ട് കൊണ്ടുവരുന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെയും ഇത് ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയുവാണ് എങ്കിൽ കേരളത്തിലപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ഒരാളാണ് പുള്ളിക്കാരനും മരിച്ചുപോയി നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് പുള്ളി അതുപോലെ അതുപോലെ മനസ്സിൽ നിന്നുണ്ടായതാണിപ്പം വിഴിഞ്ഞം പോർട്ട് അതുപോലെതന്നെയിപ്പം രണ്ടായിരത്തിരണ്ട് കേരളഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നാല് വരിപ്പാത ഹൈ വേ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഓരോ ആൾക്കാര്ക്കൊരു കുറെ നഷ്ടങ്ങൾ പറ്റുന്നയാൾക്കാരൊണ്ടെന്നാലും പക്ഷെ അവരുടേതായ രീതിയിൽ അവർക്ക് അവർക്ക് നല്ല രീതിലവര് മുമ്പോട്ട് കൊണ്ടുപോയി അവരെ നല്ല രീതിയിൽ നേർവഴിക്കാക്കി അവരെ കൊണ്ടുവന്ന് ഒരു രീതിയിൽ നമ്മുടെ കേന്ദ്ര അല്ല കേരളാഗവൺമെൻറ്റും കേന്ദ്രഗവൺമെൻറ്റൂടെ ചേർന്ന് നടത്തുന്നുണ്ട് അത്പോലെതന്നെ ഒരു ഇപ്പം സംഭവിച്ച മാറ്റങ്ങളിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിപ്പോൾ വയനാട് കേരളത്തിലെ വയനാട് നടന്നൊരു വലിയൊരു ദുരന്തമാണവിടെ അതിന് ഒരുപാട് ഞാനിപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ആരും വിചാരിച്ചില്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാകും എന്നൊന്നും